മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ടുതന്നെ മലയാളത്തിൽ സംസാരിക്കുമ്പോളും എഴുതുമ്പോളും ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല മലയാളത്തെ പറ്റി ഒരുപാട് കവികൾ പലതും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മനോഹരമായ ഒരു ഭാഷയാണ് മലയാളം